വളരെ കാലങ്ങൾക്ക് മുമ്പ് വരെ പാചകം ചെയ്തിരുന്നു വെച്ചത് വിറക് അടുപ്പിലായിരുന്നു വിറക് കണ്ടെത്താനും മഴക്കാലത്തൊക്കെ വിറകിൻ്റ വിറക് നനഞ്ഞിട്ട് കത്തിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പുകയും കരിയും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു മഴക്കാലത്തായിരുന്നു കൂടുതലും ബുദ്ധിമുട്ടുകൾ അതേ അത് കഴിഞ്ഞ് എൽ പി ജി ഗ്യാസ് കണക്ഷൻ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പാചകം ഒക്കെ വളരെ സുഖമായി കരിയില്ല പുക കൊള്ളേണ്ട സമയം ലാഭം അതേപോലെത്തന്നെ പാത്രങ്ങളിലൊന്നും കരിയായില്ല നമുക്ക് പെട്ടെന്ന് പാചകം ഒക്കെ ചെയ്ത് കഴിയാൻ പറ്റുന്നുണ്ട് വളരെ എളുപ്പമായിട്ട് തോന്നുന്നു അതേപോലെത്തന്നെ വെള്ളം തിളപ്പിക്കാനൊക്കെ വളരെ പെട്ടെന്ന് വെള്ളം തിളപ്പിക്കാനും പാചകങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനും എല്ലാംകൊണ്ടും സുഖവും സൗകര്യവുമായി